മൃഗവളർത്തലിൽ ആദായം ഉള്ള കൃഷിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആട് കോഴി പോത്ത് പന്നി ഇവയൊക്കെ വളർത്തുകയാണ് ആദായം ഉണ്ടോന്നു ചോദിച്ചാലാദായം ഉള്ളതാണ് പക്ഷേങ്കില് അതിൻ്റെ ചെലവ് നോക്കുമ്പോഴാണ് പ്രശ്നങ്ങള് ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ നമുക്ക് എന്തു മാര്ഗങ്ങളാണെന്നുള്ളത് കണ്ടുപിടിക്കണം പിന്നെ രോഗങ്ങള് രോഗങ്ങൾ വരുന്നതും ഒരു പ്രശ്നമാണ് അതും എങ്ങനെ കുറയ്ക്കാന് പറ്റും എന്നുള്ളത് ആണ് മറ്റൊരു ആലോചിക്കേണ്ട കാര്യങ്ങള് ഭക്ഷണങ്ങള് നമ്മള് വലിയ വില കൊടുത്ത് വാങ്ങിയാണെങ്കിലും ഒക്കെ കൊടുക്കും കൊടുക്കാ എങ്ങനാ നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത പോകാവുന്നതൊക്കേയുള്ളു പക്ഷേ രോഗം വരുന്നതും കാലിത്തീറ്റയുടെ വിലയൊരു പ്രശനമുണ്ട് എന്നാലും പാല് വിറ്റ് കിട്ടുന്നോണ്ടോ അല്ലെങ്കി മൃഗങ്ങളെയൊക്കെ അല്ലാതെ ഇറച്ചിക്കോ ഒക്കെ ആയിട്ട് നമ്മള്ക്ക് കൊടുത്തോ വളമായി ചാണകമൊക്കെ കൊടുത്ത് വളമായിട്ടൊക്കെ നമുക്ക് കുറെയൊക്കെ ആദായം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇതിൻ്റെ വിപണിയാണ് മറ്റൊരു പ്രശ്നം നമ്മള് മില്മായിലൊക്കെ കൊണ്ടുപോയി കൊടുത്താല് പാലിന് നമ്മള്ക്ക് വീടുകളിൽ കൊടുക്കുന്നതുപോലെയുള്ള ആദായം ഉണ്ടാവുകയില്ല വീടുകളിൽ കൊണ്ടുപോകുന്നതിനും പല ബുദ്ധിമുട്ടുണ്ട് എന്നാലും അത്യവശ്യങ്ങളിൽ നമ്മൾ അങ്ങനേം ചെയ്യും മില്മായില് നിന്നും എല്ലാം കുടി ഉള്ള വരുമാനം അങ്ങനെ നഷ്ടമെന്ന് നമുക്ക് തീർത്തു പറയാൻ പറ്റില്ല അത് തൊഴിൽ ആണല്ലോ എന്തെങ്കിലും ഒരു തൊഴില് ചെയ്ത് ജീവിക്കുന്ന കൃഷിക്കാരായ നമുക്ക് മറ്റു പണിയൊന്നും ജോലികളുമില്ലാത്തപ്പോളിതല്ലാതെ ജീവിതമാർഗ്ഗം മറ്റൊന്നുമില്ല ഇത് വി വിറ്റഴിക്കാനുള്ള മാര്ഗങ്ങള് വിപണികളില്ലെന്നല്ല വിപണികളുണ്ടെ പിന്നെ മൊട്ടയ്ക്കും മറ്റും കോഴിയെയും വളർത്തി കോഴിക്കൂടും തീറ്റയും പിന്നേം മൊട്ടകളൊന്നും ഇങ്ങനെ മാർക്കറ്റുകളായിട്ട് അങ്ങോട്ട് എടുക്കയാണെങ്കില് അവര് നമ്മുക്ക് നല്ല ഒരു വില തന്നെടുക്കുന്നില്ല അത്യാവശ്യം വീടു വഴി നമുക്ക് കൊടുത്താല് അതിനും ലാഭമുണ്ട് പിന്നെ വേറെ എന്തുവാ പിന്നെ പശു ആടുവളർത്തല് ആടുവളർത്തലും ലാഭമുണ്ട് പിന്നെ ആടുവളര്ത്തലിന് ഇത്രയും വലിയാ ചെലവ് വേറിയൊരു അത്ര ചിലവേറിയ ഒരു കാര്യമൊന്നുമല്ല അതും ആദായം ഉണ്ടാക്കാവുന്നതാണ് വരുമാനമാർഗ്ഗങ്ങളോരോന്നും നമ്മള് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് എല്ലാവർക്കും തൊഴിൽ ജീവിക്കാൻ ആവശ്യമാണ് എന്തെങ്കിലും തൊഴിൽ ചെയ്തതല്ലേ ഈ ജീവിത ചിലവുകൾ അതുപോലെ വരുന്ന കാല കാലഘട്ടങ്ങളിൽ എല്ലാവർക്കും ജീവിക്കാൻ പറ്റുകയുള്ളു അപ്പോള് എല്ലാവരു എന്നും ഇന്ന് ഇങ്ങനെയുള്ള രംഗത്തുനിന്നും മാറിനിൽക്കുന്നതിനു പല കാരണങ്ങളുണ്ട് പിന്നേ

എങ്കില്പ്പിന്നെ നമ്മള് എല്ലാത്തിനെയും വളർത്തി മാടൊക്കെയാണേലും വളർത്തി നമ്മള് തന്നെ മാംസമാക്കിയൊക്കെ കൊടുക്കുകയാണെങ്കില് ആടിനെയുംകൊണ്ട് ലാഭമാണ് നമ്മള് ആടിനെ ഉണ്ടാക്കി മാംസ കച്ചവടക്കാർക്ക് കൊടുക്കുന്നതിലും ലാഭംകിട്ടും അങ്ങനന്തെങ്കിലും പദ്ധതി തുടങ്ങുകയാണെങ്കില് ആട് ഇറച്ചിക്കും മറ്റും നല്ല വിലയുമാണ് നമുക്ക് ആ വില ലഭിക്കുന്നപോലെ ഇതങ്ങനെ ഉള്ള മാർക്കറ്റുകളുണ്ടാകുവോ അതിനുള്ള സൗ പദ്ധതികൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോയാല് കൂടുതലാളുകൾ ആടുവളർത്തലിലേക്കൊക്കെ ഇറങ്ങുമെന്നാണ് എൻ്റെ ഒരഭിപ്രായം പിന്നേ മറ്റു വ്യവസായങ്ങള് എല്ലാവർക്കും അത്യവശ്യമുള്ളതാണ് പാലും മുട്ടയും മാംസവും അതിന്ന് ഉപയോഗിക്കുന്നവരാണ് ധാരാളം ആൾക്കാര് ആ രംഗത്തോട്ട് കൂടുതൽ ആൾക്കാർ ഇറങ്ങുകയാണെങ്കിൽ അതൊരു നല്ല വരുമാന മാർഗ്ഗമായി മാറും അതിനുള്ള പദ്ധതികള് സർക്കാരിൻ്റെ പക്ഷത്തുനിന്നോ അല്ലാതുള്ള സംഘടനവഴിയോ എങ്ങനെയെങ്കിലും മുന്നോട്ട് വരികയാണെങ്കില് അത് ഒരു സാ സാധാരണ ജനങ്ങൾക്ക് മുഴുവനും സഹകരിക്കാൻ പറ്റുന്ന ഒരു സംരംഭമാണെന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ വരുമാനവും ഉണ്ടാവുകയും ചെയ്യും അത് ഗ്രൂപ്പായിട്ടോ മറ്റുമൊക്കെ ഇത് ചെയ്യുകയാണെങ്കില് എല്ലാവർക്കും ഒത്തിരി ലക്ഷങ്ങളൊന്നും മുടക്കി ഓരോ പ്രോജെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനേലും ഏതെങ്കിലും സംഘടനയുടെ കീഴിലോ ഗവൺമെൻറ്റിൻ്റെ കീഴിലോ ഒക്കെ അങ്ങനെയുള്ള വലിയ വലിയ പ്രസ്ഥാനങ്ങളിലോട്ട് മാറുകയാണെങ്കിൽ അതെല്ലാം ധാരാളം പണം ഉണ്ടാക്കാവുന്ന ഉണ്ടാക്കാവുന്ന പരിപാടിയാണ് പിന്നെ എല്ലാവരും ഓരോന്നില്ലേക്ക് ഇറങ്ങുകയാണ് ജെനങ്ങളും മടിയാരായിട്ടൊന്നും ഇരിക്കാതെ എല്ലാവരും എന്തെങ്കിലൊക്കെ തൊഴില് ചെയ്ത് ജീവിക്കും ഞാൻ പറഞ്ഞതു കേട്ടോ ഓഫെയ്യുന്ന എങ്ങനെ